അത് ഇപ്പോൾ വലിയ പ്രേക്ഷകവൃത്തത്തെ ആകർഷിക്കുന്ന അതായത് കേരളത്തിലെ പ്രധാന സംഗീത നൃത്തോൽത്സവങ്ങൾ ഏതൊക്കെയാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് പരിപാടികൾ അതായത് പരിപാടികളെക്കുറിച്ച് നമുക്ക് പറയാം ക്ലാസ്സിക്കൽ അതായത് ക്ലാസ്സിക്കൽ നൃത്തങ്ങൾ എതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ അതായത് പിന്നെ ക്ലാസ്സിക്കൽ നൃത്തമൊക്കെ ഇതാക്കി പിന്നെ അതായത് ക്ലാസ്സിക്കൽ നൃത്തമൊക്കെ പഠിച്ച് അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞ് വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ പിന്നെ അതായത് നല്ലവണം പ്രാക്റ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം എന്നു വെച്ചാൽ നമ്മൾ സ്കൂളായിരിക്കും സ്കൂൾ കലോത്സവത്തിനാണ് തുടങ്ങുക അവിടെ നമ്മൾ ജഡ്ജസ് തിരഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ ഉപജില്ല ജില്ലാ സംസ്ഥാനം സ്റ്റേറ്റ് പിന്നെ ദേശീയം അങ്ങനെ ഓരോ തലത്തിലും അതൊക്കെ ഓരോ കുട്ടികളുടെ കഴിവ് കാര്യങ്ങൾ പോലെയിരിക്കും പിന്നെന്നു വെച്ചിട്ടുണ്ടേ അതുപോലെതന്നെ നമുക്ക് നാടോടി നൃത്തം കുച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം ഇങ്ങനെ ഒരുപാട് കലകൾ പരിപാടികളൊക്കെയുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാണെങ്കിൽ നമുക്ക് പിന്നെ അതുപോലെത്തന്നെ നാടൻ പാട്ട് പാട്ടുകളൊക്കെ ആണെങ്കിൽ നാടൻപാട്ട് ദേശഭക്തിഗാനം ദേശീയഗാനം അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മളുടെ ചുറ്റിനും ഉണ്ട്